എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ പറയുന്ന രീതിയിലേക്ക് ഡാൻസ് റീലുകളും ഇതൊക്കെ കാണാറുണ്ട് കാരണം പിന്നെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തെനിക്കത് നടക്കാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു ഇപ്പോള് നമുക്ക് ഞാൻ റീട്ടേറ്യ്ത് കഴിഞ്ഞപ്പഴ്ത്തേക്ക് എനിക്ക് കുറച്ച് കൂടുതലായിട്ട് സമയം ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് മറ്റുള്ള വർക്കുകളൊക്കെ കഴിയുമ്പള്ത്തേക്ക് കൂടുതലായിട്ടും ഞാന് ഈ പറയുന്ന രീതിയില് വാട്സ്പ്പിലുള്ള കാര്യങ്ങളുണ്ട് ടി വിയിലുള്ള ഇതുണ്ട് ഫേസ് ബുക്ക് അങ്ങനെയുള്ള ഇതൊക്കെ യു ട്യൂബ് ഇതൊക്കെ പ്രയോജനപ്പെടുത്തി ഇതിലൂടെയൊക്കെ കൂടുതലായിട്ട് നല്ല പിന്നെ റീ ഡാൻസ് റീലുകളൊക്കെ ഉണ്ടെങ്കില് തീർച്ചയായിട്ടും ഞാൻ കാണാറുണ്ട് അത് കാരണം മനസികമായിട്ട് നമ്മള് നമുക്കൊരു നല്ല ഉന്മേഷം തരുന്നൊരു സംഭവമാണ് കാരണം കൂടുതലായി ജോലിയൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വന്ന് കഴിയുമ്പള്ത്തേക്ക് ഇതൊക്ക കാണുകയെന്നു പറഞ്ഞുകഴിഞ്ഞാൽ മനസ്സിനൊരു സന്തോഷം തരും നമ്മള് കുറച്ച് എന്നാ റീലാക്സിഡായിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മൈക്കിൾ ജാക്സൻ്റെ പിന്നെ നൃത്തം അതുകഴിഞ്ഞാൽ ഡാൻസ് തന്നെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് കാരണം പല അദ്ദേഹത്തിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ യു ട്യൂബിലൊക്കെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതൊക്കെ എടുത്ത് കാണുകയെന്നു പറഞ്ഞാൽ നല്ല രസമുള്ള കാര്യ കാഴ്ചകളാണ് അപ്പോള് അത് അതിലൂടെ നമുക്കൊരു മനസികമായിട്ടുള്ളൊരു ഉല്ലാസം ലഭിക്കാറുണ്ട് അതുപോലെ തന്നെ ശോഭന ഡാൻസ് ഡാൻസ് നടത്തുന്ന ശോഭനയുണ്ട് വിനീതുണ്ട് അവരുടെയൊക്കെ ഡാൻസ് അവരൊക്കെ മിക്കവാറും ഇതുപോലെയുള്ള നല്ല ഡാൻസ് റീലുകളൊക്കെ പിന്നെ അവരുടെ നമ്മള് കാണാറുണ്ട് അപ്പോള് കുട്ടികളെ നമ്മളത് കാണിക്കും കാരണം ഇങ്ങനെയൊക്കെ ഉള്ളത് കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ് അവരുടെയും കുറച്ച് സമയം ഇതിന് വേണ്ടി ഉപയോഗിക്കാണെമെന്നുണ്ടെങ്കിലവർക്കും മനസികമായിട്ടൊക്കെ ഉള്ള നല്ല പിന്നെ ഒരു ഉന്മേഷം ലഭിക്കുന്നതാണ് അപ്പോള് അതുകൊണ്ട് അവരുടെ വിദ്യ പഠന സമയം കഴിയുമ്പഴ്ത്തേക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് നമ്മള് കൂടുതലായിട്ടും കാണിക്കാറുണ്ട് പിന്നെ ഇപ്പോള് നമുക്ക് പിന്നെ അല്ലാതെ ഡാൻസ് പ്രോഗ്രാമായിട്ടുണ്ട് ഈ പിന്നെ ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയായിൽ പോകുന്ന കൂടാതെ നമ്മള് ഡാൻസ് പ്രോഗ്രാമുകളുണ്ട് അതൊക്കെ എവിടെയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടങ്കിൽ നമ്മളത് കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ പ്രായോഗികമായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ദൂരെ സ്ഥലങ്ങളിൽ പോയി നമ്മളത് കാണുകയെന്നു പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കെപ്പഴും അതിനുള്ളൊരു സമയം ലഭിച്ചെന്ന് വരത്തില്ല അതുകൊണ്ടാണ് കൂടുതലായിട്ടും നമ്മളീ പറയുന്ന രീതിയിലേക്ക് ടി വിയിലൂടെയും അല്ലങ്കിലീ പറയുന്ന പിന്നെ ഫേസ് ബുക്ക് യു ട്യൂബ് ഇതിലൂടൊക്കെ ലഭിക്കുന്ന ഡാൻസ് റീലുകളും ഷോർട്സൊക്കെ പിന്നെ കാണാനായിട്ട് ശ്രമിക്കാറുള്ളത് കാരണം എന്താണെന്നുവച്ചുകഴിഞ്ഞാൽ ഏറ്റവും ദൂരെ നടക്കുന്നതോ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്നതോ ആയിട്ടുള്ള കാരണം നല്ല വലിയ പ്രോഗ്രാംസൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിലേക്ക് നമ്മളുടെ അടുത്ത് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് കാണാനായിട്ടുള്ളൊരവസരം ലഭിക്കുകയെന്നു പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് ഒത്തിരി ലാഭമുണ്ട് പിന്നെ ദൂരെ യാത്രകള് ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമ്മടെ സമയം നമുക്ക് നമ്മുടെ പിന്നെ നമുക്ക് ഏതെങ്കിലും സമയം വീണുകിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അൽപ്പം പ്ലഷറായിട്ട് നമുക്ക് കൂടുതലായി സമയം ഉപയോഗിക്കാൻ സാധിക്കൂന്നുണ്ടങ്കിൽ ആ സമയം നമ്മളെടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയത്തിൻ്റെ കാര്യത്തിൽ ഒരു നിഷ്ഠ പാലിക്കാനായിട്ട് സാധിക്കും കാരണം ഒത്തിരി യാത്രകളൊക്കെ ഒഴിവാക്കി നമുക്ക് വീട്ടില് ഇരുന്നുകൊണ്ട് ഈ പറയുന്ന രീതിയിലേക്ക് നമുക്ക് കാണാം അതുപോലെയുള്ള നല്ല നർത്തകരെ തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടമാണ് നല്ല നർത്തകരുടെ ഡാൻസ് പ്രോഗ്രാം യു ട്യൂബിലോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് സെലെക്റ്റ്യ്ത് ഈ പറയുന്ന ആളുകളുടെ പരിപാടികള് നമ്മള് കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് കൂടുതലും നമ്മുടെ കുടുംബാംഗളൊരുമിച്ചിരുന്ന് കാണാനായിട്ടാണ് നമ്മള് ശ്രമിക്കുന്നത് കാരണം എല്ലാവർക്കും അത് നല്ല രീതിയിലേക്കത് പ്രയോജനപ്പെടുകയും എടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും